ലോക്ക്ഡൗണിലാണ് കൂടുതൽ ആളുകൾ മൊബൈൽ ലാപ്ടോപ്പുകൾ മുതലായുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കാരണം എന്താണെന്നു പറഞ്ഞാൽ ബാക്കി ഇപ്പോള് ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയില് ജീവിക്കുന്ന ഒരു ഒരു പയ്യന് അല്ലെങ്കില് ഒരു പെണ്ണിന് ഒരിക്കലും പത്താം ക്ലാസ് കഴിയാതെ അല്ലെങ്കില് ഒരു പ്ലസ് വൺ പ്ലസ് ടു കഴിയാതെ മൊബൈൽ കൊടുക്കുകയില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് ഉള്ളവരുണ്ടാവും ഭയങ്കര റെയറാണ് പക്ഷെ ഇങ്ങനെയുള്ളവരാണ് കൂടുതലും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരു പത്താം ക്ലാസ്സൊക്കെ അടുത്തായപ്പോള്ത്തന്നെ ഓൺലൈൻ ക്ലാസ് എന്നു പറഞ്ഞൊരു സംരംഭം നമുക്ക് ലോക്ക്ഡൗൺ മുതല് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് അപ്പോള് ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവർക്കും ഇതേപോലെ നമ്മൾ മൊബൈലുകൾ വാങ്ങിക്കൊടുക്കേണ്ടിവന്നു അപ്പോൾ അങ്ങനത്തൊരു ഉപയോഗത്തിന് ഏറ്റവും കൂടുതല് കാരണമാക്കിയതും ഈ ലോക്ക്ഡൗൺ തന്നെയാണ് ഇപ്പോള് എൻ്റെയൊരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഒൻപതാം ക്ലാസിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു അവസാനത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കാണ് ഈ ലോക്ക്ഡൗൺ വന്നതും എല്ലാവരും തൻ്റെ വീടുകളില് ഇരിക്കേണ്ടിവന്നതും അപ്പോള് അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്കു വേണ്ട കാര്യങ്ങൾ വേണ്ട സാധനം എന്താണെന്നുപറഞ്ഞാല് നമുക്കൊരു ഓൺലൈൻ നമുക്കിപ്പോള് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് പഠിക്കാൻ വേറൊരു മാർഗ്ഗവും ഇല്ലാതായി വന്നപ്പോഴത്തേക്കാണ് നമുക്ക് മൊബൈൽ ലാപ്ടോപ്പുകൾ മുതലായ സാധനങ്ങൾ വേണ്ടിവന്നത് അപ്പോൾ എനിക്കാ ഒരു സമയത്താണ് മൊബൈൽ കിട്ടുന്നതും ഞാൻ അതിലാണ് ഓൺലൈൻ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നതും നമ്മള് പത്താം ക്ലാസ് എസ്സെസ്സെല്സി ഫുൾ നമ്മള് മൊബൈലിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മൊബൈലിലങ്ങനെ ചെയ്തോണ്ടിരുന്നതുകൊണ്ട് എനിക്കു വീട്ടിലങ്ങനത്തൊരു ഉപയോഗം നമുക്കവിടെ വന്നു അതു കഴിഞ്ഞിട്ടുള്ളതെന്നു പറയുമ്പോള് എൻ്റെയൊരനുഭവത്തിൽനിന്നു പറയുമ്പോള് ഓൾമോസ്റ്റ് ഇപ്പോള് ഇങ്ങനെ മൊബൈല് കൊടുത്തതുകൊണ്ട് എല്ലാവരും അവരതു പഠിക്കാൻവേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് അതില് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയും അങ്ങനെ പല പല കാര്യങ്ങൾ അവരതിൽ എൻഗേജ് ആവുകയും ചെയ്തു അപ്പോള് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ യൂസ് അല്ലെങ്കിൽ ഒരു ഒരു ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ് യൂസ് എല്ലാവർക്കും കൂടി ഈ ഒരു ഈ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ആൾക്കാരുടെ ഇതുപോലെയല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുതുടങ്ങി അപ്പോള് അങ്ങനെയൊക്കെയാണ് ലോക്ക്ഡൗണാണ് നമുക്ക് മെയിനായിട്ട് ഒരു കാര്യം ഈ ലോക്ക്ഡൗൺ എന്നുള്ള ഒരു സംഭവം കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇങ്ങനെ പറ്റുന്നതും അതാണ് കുറച്ചുംകൂടെ ഒരു യുവജനങ്ങളിൽ കുറച്ചുംകൂടെ ഭീകരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള രീതിയിലോട്ടു കൊണ്ടു വന്നത്